ചിത്ര രചന എന്നുള്ളതെന്താണ് ചിത്രം ഒരു വരക്കുക എന്നുള്ളതാണ് വരകൾ പലതരമുണ്ട് പെൻസിൽ ഡ്രോയിങ് ഉണ്ട് അതുപോലെത്തന്നെ എന്താണ് വാട്ടർ പെയിൻറിങ് ഉണ്ട് അതുപോലെത്തന്നെ പല വെറൈറ്റി എന്താ പെയിൻറ് ടൈപ്പുകൾ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഏറ്റവും ഒരു ഒരു ഒരു മനുഷ്യനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനം ഘടകം വഹിക്കുന്നത് അതിൻ്റെ മുഖം വരയ്ക്കുന്നതിലാണ് അതാണ് സ്ട്രക്ചർ ചെയ്ത് കിട്ടാൻ പെടുന്ന ഒരു പാടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്നിലക്ക് എൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ ഞാനൊരു മുഖം വരത്തിൻ്റെ ഒരു ഫൈൻ ടച്ചിങ് ഉണ്ട് അവിടെയാണ് ആ ചിത്രത്തെ ഇത് നമ്മൾ കയ്യും കാലും വരയ്ക്കുന്നയിടത്തൊന്നും ആവില്ല അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടുക ആ ഒരു അതിൻ്റെ മുഖത്തിലേക്ക് കടന്ന് ആ മുഖത്തിലുള്ള ഓരോ പോയിൻറുകളും ഓരോ ഡിഗ്മെൻറ്റുകളും കൃത്യമായി വരച്ച് അതിലൂടെ കടന്ന് പോകുന്നതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളിയായി വരുന്നത് അത് അത് തന്നെയാണ് പിന്നെന്താ വെച്ചാൽ ആർട്ടിസ്റ്റ് എന്നുള്ള വരക്കുന്ന സമയത്ത് മുന്നിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആ ചിത്രത്തിൻ്റെ പിന്നാമ്പുറത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് ആർട്ടിസ്റ്റ് മുന്നിൽ കാണുന്നത് അതുപോലെ വരച്ചു വയ്ക്കുന്നതിനേക്കാളും നല്ലത് അതിൻ്റെ ചുറ്റുഭാഗത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞ് എന്നിട്ട് അതൊക്കെ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് അവൻ്റെ എപ്പോഴും പ്രയാസങ്ങളുണ്ടാവും ഒബ്സ്റ്റാക്ക്ൾസ് ഉണ്ടാവും തടസ്സങ്ങളുണ്ടാവും അതൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകൻ ഒരു ആർട്ടിസ്റ്റ് ശ്രമിക്കണം ചിത്രരനയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളിയാകുന്നത് ഇതൊക്കെ തന്നെയാണ് മുന്നിൽ കാണുന്നതല്ല വരയ്ക്കേണ്ടത് മുന്നിൽ കാണുന്നതിൻ്റെ പിന്നാമ്പുറമാണ് ഒരു ആർടിസ്റ്റ് വരയ്ക്കേണ്ടത് അവരാവണം ഒരു ആർട്ടിസ്റ്റ് അല്ലാതെ ഏതൊരാൾക്കും വരച്ചുകൂടെ വരച്ചുകൂടെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല എന്നാലും എന്തൊക്കെ നേരിട്ട് കാണുന്നതിനേക്കൾ കൂടുതൽ അതിൻ്റെ പിന്നാമ്പുറം വരയ്ക്കുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും എന്ത് എന്ത് നമ്മളൊരു എഴുത്തിലൂടെ ചിലപ്പം ഉള്ള ചിലർക്ക് എഴുതിയിട്ട് എന്താവും എന്താ അതിനെ വർണിക്കാൻ സാധിക്കും ചിലർക്ക് വരച്ചിട്ട് വർണ്ണിക്കാൻ സാധിക്കും പക്ഷെ ഈ എഴുത്ത് ഒരു രണ്ട് പേജ് എഴുതുന്ന സാധനം വേണമെങ്കിൽ നമുക്ക് ഒറ്റ പിക്ചർൽ ഒതുക്കാൻ പറ്റും അല്ലെങ്കിൽ നൂറ് പേജിൽ ഒതുക്കേണ്ട സാധനം നമുക്ക് ഒറ്റ പിക്ചർ ഫോട്ടോയിൽ നമുക്ക് ഒതുക്കാൻ കഴിയും ഒരു പെയിൻറ്റ്ൽ നമുക്ക് ഒതുക്കാൻ കഴിയും അത്രത്തോളം വലിയ ആശയങ്ങൾ നൽകുന്നതാണ് എന്തുള്ളത് ചിത്രം എന്നുള്ളത് അല്ലെങ്കിൽ വര എന്നുള്ളത് ഡ്രോയിങ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് അപ്പം അത്രത്തോളം ചിന്തിച്ച് ഓരോ പോയിൻറ്റുകളും കൃത്യമായി ആലോചിച്ച് ചിന്തിക്കുന്നവരാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഒരു പുസ്തകം മുഴുവൻ നമുക്ക് വേണമെങ്കിലും എന്താവും രണ്ടു മൂന്ന് പിക്ചറ്ൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വരകളിൽ ഡ്രോയിങിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അവിടെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ഒരുപാട് നേരം ഇപ്പോൾ ഒരു മണിക്കൂറോളം ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിനെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരൊറ്റ പിക്ചറിൽ വേണമെങ്കിൽ ഒതുക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എന്ത് വര ആർട്ടിസ്റ്റ് ആർട്ടിസം എന്നുള്ള ഒരു ഇത് എന്നുള്ളത് അപ്പം അതിനെ മനസ്സിലാക്കി കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാവണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് അപ്പം ഇങ്ങനൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് പരിശീലിക്കേണ്ടത് മുന്നോട്ട് പോവേണ്ടതും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കഴിയുന്നതും ഓരോ യാത്രകൾ ചെയ്യുമ്പോളൊക്കെ കൃത്യമായി വരച്ച് പഠിക്കാൻ ശ്രമിക്കുക